ഞാൻ ആദ്യമായാണ് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത് അതും കിച്ചൻ വെയർ സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തത് പാത്രങ്ങളാണ് ഞാൻ കൂടുതലായും അടുക്കളയിൽ ആവശ്യമായ പാത്രങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എൻ്റെ പൈസ പോകുമോ എന്ന് കാരണം ആദ്യത്തെ സാധനങ്ങളാണ് ഞാൻ ഓൺലൈനിലൂടെ ഓർഡർ ചെയ്യുന്നത് എന്നാൽ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് കാരണം കയ്യിൽ കിട്ടിയപ്പോൾ സാധനങ്ങൾ എല്ലാം ഒന്നിനൊന്നു മെച്ചമാണ് പൈസയും കുറവായിരുന്നു അതുപോലെതന്നെ സാധനങ്ങളുടെ ക്വാളിറ്റിയും ഗുണനിലവാരവും എനിക്ക് നന്നേ ഇഷ്ടമായി സെറാമിക് പ്ലേറ്റുകളാണ് അതിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമായത് ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ അതേ നിറവും ഡിസൈനുമാണ് നേരിട്ട് കിട്ടിയപ്പോൾ അതിൻ്റെ കൂടെയുള്ള സ്പൂണുകളും ഞാൻ വിചാരിച്ചതിനെക്കാളും നന്നായിട്ടുണ്ട് അതിൻ്റെ ഡിസൈനും വലുപ്പവും എല്ലാം ഞാൻ ഉദ്ദേശിച്ച അതുപോലെ തന്നെയാണ് പിന്നെ ഞാൻ കുറച്ച് സ്റ്റീൽ പ്ലേറ്റുകൾ കിണ്ണങ്ങളും ഓർഡർ ചെയ്തിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ കിണ്ണങ്ങളും ആ സ്റ്റീൽ പ്ലേറ്റുകളും വളരെ നന്നായിട്ടുണ്ട് എല്ലാത്തിനും അത്യാവശ്യം വേണ്ട ഭാരവുമുണ്ട് കാരണം സ്റ്റീൽ പ്ലേറ്റുകളല്ലേ ഭാരത്തിന് അനുസരിച്ച് അത് കൂടുതൽ നിൽക്കുന്നതാണ് എല്ലാം നല്ല ഷൈനിങ്ങും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഇതിൻ്റെ കൂടെ തന്നെ പിജിയണിൻ്റെ നോൺ സ്റ്റിക്ക് ദോശ തവയാണ് അത് വളരെ നന്നായിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച അത്രയും തന്നെ വലുപ്പവും ഉണ്ട് പിന്നെ ജ്യൂസ് ഗ്ലാസുകൾ ആറ് ഗ്ലാസുകൾ ആണ് ഇതിൻ്റെ കൂടെ ഞാൻ ഓർഡർ ചെയ്തത് അതും കാണാൻ നല്ല ഭംഗിയുണ്ട് ഡിസൈനും ഫോട്ടോയിൽ കണ്ട അതേപോലെ തന്നെയാണുള്ളത് മൊത്തത്തിൽ എനിക്കെൻ്റെ ആദ്യത്തെ ഓൺലൈൻ ഷോപ്പിങ്ങ് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു ഇനിയും അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്യുന്നതാണ്